ഹലോ പത്ത് സിയിൽ പഠിക്കുന്ന രമേഷിൻ്റെ അച്ഛനല്ലേ ഞാൻ നിങ്ങളെ രണ്ടു പ്രാവശ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് കിട്ടിയില്ല ആ ഞാൻ വിളിച്ചത് നമുക്ക് പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തായിരുന്നു കേട്ടോ മോഡൽ എക്സാമിൻ്റെ അപ്പം ഞാൻ ഒരു കാര്യം പറയാമെന്നു വച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും വിഷമമൊന്നും തോന്നരുത് ഇത് ഇങ്ങനെയാണ് ഈ രീതീലാണ് അവൻ പഠിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ അവനെ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എഴുത്ത് ഇടാൻ വേണ്ടി പറ്റത്തില്ല കാര്യമെന്നു വച്ചു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കരമായിട്ട് മാർക്ക് കുറവാണ് സാധാരണ ഐ ടി വിഷയത്തിനും ഈ ലാംഗ്വേജ് വിഷയങ്ങൾ മലയാളം ഇംഗ്ലീഷിനൊക്കെ സാധാരണ ഒരു കൊച്ചിന് മാർക്ക് കയറൂന്നതാണ് അതിനകത്ത് ഇവന് ഇതിനുപോലും മാർക്ക് ഇല്ല ഇതിനു പോലും അവൻ ഡി പ്ലസ് മാർക്കാണ് ഈ മോഡൽ പരീക്ഷയ്ക്ക് എഴുതി വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഈ മാർക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടും കൂടല്ല ഞാൻ വിളിച്ചത് വേറെ കുറച്ചു കാര്യം കൂടെ ഉണ്ട് സംഭവമെന്നു വച്ചു കഴിഞ്ഞാൽ ഇവൻ സ്കൂളിൻ്റെ ഈ ഒരു റൂളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇപ്പം നിങ്ങൾ ഏതു വരെ ഏത് ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചായിരുന്നു ആ ആ അപ്പഴ് പത്താം ക്ലാസ് വരെ പഠിച്ചപ്പോൾ ഒരു ഇത്തിരി വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസിലാക്കണം നമ്മൾ ഈ സ്കൂളിൽ നമ്മൾ വരമ്പോഴ് ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളും അതൊക്കെ നമ്മൾ പാലിക്കണം അതിൻ്റെ കാര്യമെന്നു വച്ചു കഴിഞ്ഞാൽ അത് ഈ ബെഞ്ചുകളിൽ വരച്ചും കുറിച്ചും വയ്ക്കുക അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ ചുവരുകളിൽ അതുമിതുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയൊക്കെ വയ്ക്കുക പിന്നെ മറ്റു കുട്ടികളോട് കൂടിയിട്ട് ചെറുതായിട്ട് മോഷണപ്പരിപാടിയൊക്കെ ഇവനുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മൾ അത് കണ്ടുപിടിച്ചതാണ് ആ അല്ല അത് നമ്മൾ അത് നമ്മൾ ഒരു പ്രാവശ്യല്ലേ പോട്ടെന്നു പറഞ്ഞ് കൊണ്ട് വിട്ടതാണ് ഏ പിന്നെ ഞാൻ പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത് മനസിലായല്ലോ മോൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ക്ലാസ് ടീച്ചറും മറ്റു ടീച്ചേർസ് ഒക്കെയാണ് എൻ്റെ അടുത്ത് ഇവർ പറയാതെ ഇവൻ്റെ ടീച്ചേർസ് ഇവൻ്റെ അടുത്തുള്ള ഒരു പേർസണൽ വാത്സല്യം കൊണ്ടായിരിക്കാം ഇതൊക്കെ മറച്ചു വച്ചേയ്ക്കുന്നത് ഞാനും ഇപ്പോൾ ഈ രണ്ട് ഒരുദിവസങ്ങൾക്ക് മുൻപാണ് ഇത് അറിയുന്നത് അപ്പഴ് വേറെ ഒരു കാര്യമെന്നു വച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ കുട്ടികൾ ഇൻ ഷർട്ട് ചെയ്തു വരണം അല്ലെങ്കിൽ ടൈ ധരിക്കണം എന്നൊക്കെ ഒരു റൂൾസും കാര്യങ്ങളുമൊക്കെ ഈ സ്കൂളിനുണ്ട് അതായത് ഈ ഒരു സാമാന്യ മര്യാദയാണ് കുട്ടികൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു വരിക എന്നുള്ള കാര്യം ഇപ്പം ഇവൻ ഇവൻ മാത്രം ഈ സ്കൂളിൽ ഇവൻ മാത്രം ഇൻ ഷർട്ടും ചെയ്യില്ല ടൈയും ധരിക്കില്ല മുടിയും ചീകത്തില്ല ഏ വല്ലാത്ത ഒരു അവസ്ഥയിൽ അന്തരീക്ഷത്തിലാണ് ഈ ചെറുക്കൻ സ്കൂളിൽ വരുന്നത് പറയുന്നതിനു വിഷമമൊന്നും തോന്നരുത് ഇവൻ ഇവൻ ഇങ്ങനെ പോയിക്കഴിഞ്ഞു പോയെങ്കിൽ ഇവനു ഈ പരീക്ഷ എസ് എസ് എൽ സി എഴുതാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾ ഇരുത്താൻ കാരണം നമ്മൾ സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരാൾ പോലും തോറ്റിട്ടില്ല നൂറുശതമാനം വിജയമാണ് ഇപ്പം ഇവൻ ഈ ഈ പ്രാവശ്യം ഇരിത്തുവെങ്കിൽ നമ്മൾക്ക് അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയമായി മാറും ഈ വർഷം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല ഇനിയും സമയമുണ്ട് മോഡൽ പരീക്ഷ ആയതേ ഉള്ളു ഇനി ഒരു ഒന്നര മാസം സമയമുണ്ട് നല്ല രീതിയിൽ വേറെ ഏതെങ്കിലും ട്യൂഷനൊക്കെ വിട്ട് അവൻ്റെ അടുത്ത് മര്യാദക്ക് അവന് ചെറിയൊരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും സൈകാർട്ടിസ്റ്റിൻ്റെ അടുത്തു കൊണ്ടുപോയി കാണിച്ചിട്ട് പരീക്ഷക്ക് ഇരുത്താനുള്ള സെറ്റപ്പ് നോക്കണം ആ ആ അവരോടല്ലേ ഹാ ആ അപ്പോൾ ട്യൂഷനൊക്കെ വിട്ടാൽ ശരിയാക്കട്ട് ഇപ്പോൾ നമുക്ക് നോക്കാം അല്ലാതെ ഇപ്പോൾ എന്തര് പറയാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഇനി ഒന്നര മാസം സമയേ ഉള്ളൂ പരീക്ഷയ്ക്ക് എന്തുവാണെന്നു വച്ചാൽ നോക്കാം അത് നിങ്ങളൂടെ ശ്രദ്ധിക്കണം വീട്ടുകാർ നിങ്ങളൂടെ ശ്രദ്ധിക്കണം നമ്മൾ ടീച്ചേർസ് മാത്രം സ്കൂളിൻ്റെ തലയിൽല് മാത്രം ആക്കിയാൽ മാത്രം പോരാ നിങ്ങളും കൂടെ ശ്രദ്ധിക്കണം വീട്ടുകാരും കൂടെ ആ ആ ആ ശരി ശരി ശരി ഞാൻ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല രീതീ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു നിങ്ങളെ വിളിച്ചു പറഞ്ഞതാണ് പേരൻ്റിനേയും കൂടെ

അത് സാധാരണ ഈ കുരുത്തക്കേടെന്നു പറയുന്ന സംഭവം ഇത് എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് പക്ഷെ ഇവന് ഇത്തിരി കൂടുതലാണ് അത് അത്കൊണ്ടാണ് ഞാനിത് അങ്ങനങ് വിളിച്ചു പറഞ്ഞത് ആ ആ ശരി ശരി